വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകളും ലാപ്ടോപ്പുകളും നൽകുന്നതു വിദ്യാഭ്യാസരംഗത്തു വിദ്യാഭ്യാസം ഉയരുന്നതിനും കുട്ടികൾക്ക് അതൊരു പ്രോത്സാഹനമാകുന്നതിനും വളരെ നല്ലതുതന്നെയാണ് പക്ഷേ പക്ഷേ സൈക്കിളുകൾ എന്നു പറയുന്നത് കുട്ടികൾക്കു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സ്കൂളുകളില് വരുവാനും പോകുവാനും അത് ഒരു നല്ല ഒരു ഉപാധിയായിരിക്കും ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ ഒട്ടും നടക്കുവാൻപോലും താല്പര്യപ്പെടുന്നില്ല വണ്ടികളിൽ മാത്രമാണ് അവര് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് സ്കൂൾ ബസുകളോ ബസുകളോ അങ്ങനെയൊക്കെയുണ്ട് അവർക്കൊട്ടും പറ്റുന്നില്ല സൈക്കിളുകളാവുമ്പോള് കുട്ടികൾക്കു നല്ല ഒരു ശാരീരിക അധ്വാനം ഉണ്ടാവുകയും അതുവഴി അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും പിന്നെ സൈക്കിളുകളിലൂടെ പോവുമ്പോഴോ കുട്ടികൾക്ക് മറ്റുള്ളവരുമായിട്ട് വർത്തമാനം പറയുവാനും അവരോടു കൂടി ചെലവഴിക്കുവാനുള്ള കൂടുതൽ ആൾക്കാരെ കാണുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു അതുകൊണ്ടുതന്നെ സൈക്കിളുകളിലുള്ള യാത്ര കുട്ടികളെ വളരെയധികം സഹായിക്കുമെന്നാണു തോന്നുന്നത് അതു കൊടുക്കുമ്പോൾ കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും അതുമായിട്ട് അവർക്ക് നടക്കുവാൻ പറ്റുകയും ചെയ്യും സൈക്കിളുകളാണെങ്കിൽ കുട്ടികൾക്കു ദിവസേന കാലത്തും വൈകുന്നേരവും ഓടിക്കുമ്പോൾ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള വ്യായാമം അതിൽനിന്നു തന്നെ ലഭിക്കും അതുകൊണ്ടു സൈക്കിളുകൾ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നതു കുട്ടികൾക്ക് പ്രോത്സാഹനത്തിനു വളരെയധികം സഹായിക്കും കാരണം അവർക്ക് ഓർമ്മശക്തി ഉണ്ടാകുന്നതിനും അവരുടെ രക്തയോട്ടം കൂടി അവർക്ക് അത് അവരുടെ ശരീരത്തിൽ വളരെ പ്രകടമായിരിക്കുന്നതിനും അതു സഹായിക്കും അത് അവർക്കൊരു നല്ല എക്സസൈസ് ആയിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കില് പോകുന്നതും വരുന്നതുമെല്ലാം കാറിലോ ബസിലോ ഒക്കെയായതുകൊണ്ട് അവർക്ക് ഈ വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള വർത്തമാനമോ ഒന്നും അവർക്കറിയത്തില്ല അപ്പോൾ സൈക്കിളുകളിൽ പോവുകയാണെകിൽ അവർക്ക് അത് ഒരു വ്യായാമം ലഭിക്കുകയും അവരുടെ ആരോഗ്യത്തിന് മെച്ചപ്പെടുകയും പിന്നെ മറ്റുള്ളവരുമായിട്ട് വർത്തമാനം പറയുന്നതിനും മറ്റുള്ളവരെ ടെ ജീവിത സാഹചര്യങ്ങള് മനസ്സിലാക്കി പതുക്കെ പോകുന്നതിനും ഒക്കെ സാധിക്കും അതുകൊണ്ടു സൈക്കിളുകള് ഒത്തിരി കുട്ടികൾക്കു കൊടുക്കുകയാണെങ്കിൽ അതു വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും കാരണം അവർക്ക് മറ്റുള്ളവരെപ്പറ്റി ചിന്തിക്കുവാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കാണുവാനും വളരെ സഹായിക്കും ലാപ്ടോപ്പുകൾ കുട്ടികൾക്കു കൊടുക്കുന്നതുകൊണ്ടു വിദ്യാഭ്യാസ ത്തിലൊത്തിരി പുരോഗമനവും പ്രോത്സാഹനവും ഉണ്ടാവും കാരണം ലാപ്ടോപ്പുകള് ഓരോ കാര്യത്തിനും ഇന്നത്തെ ലോകത്ത് ലാപ്ടോപ്പുകളുടെ ആവശ്യം വളരേ കൂടുതലാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനും നമുക്ക് എന്ത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നു അതപ്പപ്പോള് വരുന്നത് ലാപ്ടോപ്പുകളിൽ കൂടിയാണ് അതുകൊണ്ടുതന്നെ ലാപ്ടോപ്പുകള് വിദ്യാഭ്യാസത്തിനു പ്രോത്സാഹനം തന്നെ ചെയ്യും പക്ഷേ നല്ലതായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ലാപ്ടോപ്പുകൾ വിദ്യാഭ്യസത്തിനു നല്ലതു പോലെ തന്നെ പ്രോത്സാഹിപ്പിക്കും ഒത്തിരി കാര്യങ്ങൾ അതിൽനിന്നു പഠിക്കുവാനും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ലാപ്ടോപ്പുകളുടെ സഹായം വളരെ നല്ലതാണ് പക്ഷെ കുട്ടികൾക്ക് അതില് അഡിക്ഷൻ വന്നുകഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് അതൊരു പ്രശ്നമായി

ണെങ്കിൽത്തന്നെ കുട്ടികൾക്ക് ൾടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ നല്ലതുപോലെ സഹായിക്കുമെന്നു ഞാൻ കരുതുന്നു അതുകൊണ്ട് സൈക്കിളുകളായാലും ലാപ്ടോപ്പുകളായാലും ശരിയായ ഉപയോഗം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ നല്ലതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ വ്യക്തിവികാസത്തിനു സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് അതു നല്ല ഒരു രീതിയായിരിക്കും